ഹലോ അതെയതെ എന്നത്തേക്ക് പോകാനാണ് ഇരുപത്തൊന്നാം തീയതിയോ ആ ഇരുപത്തൊന്നാം തീയതി ആവുമ്പോഴ്ത്തേക്കും രാവിലെ ഒരു ട്രെയിനുണ്ട് ഒരു ആറ് അരയ്ക്ക് ജനശതാബ്ദിയുണ്ട് പിന്നെ വൈകുന്നേരം ഒരു ഉച്ചകഴിഞ്ഞ് ഉച്ചകഴിഞ്ഞ് അത് വഴി പോകുന്ന വേറൊരു ട്രെയിനുണ്ട് ആ അപ്പോൾ ഏതിലാണ് വേണ്ടത് ആ രാവിലെ പോകുന്നത് കോട്ടയം വഴിക്ക് ആ ഉച്ചയ്ക്ക് പോകുന്നത് ആലപ്പുഴ വഴിക്ക് വന്ദേഭാരതം രാവിലെ ഒരു ഏഴ് മണിക്കാണ് ആ ആ ടിക്കറ്റ് നോക്കട്ടെ ഒന്ന് ഹോൾഡ് ചെയ്യൂ ആ ആ വെയ്റ്റിംഗ് ലിസ്റ്റാണ് കേട്ടോ ആ മിക്കവാറും കയറിവരും കുഴപ്പമില്ല ഒരു ഫൈവാണ് വെയ്റ്റിംഗ് ലിസ്റ്റ് കിടക്കുന്നത് ആ എ സിയിലുണ്ട് ആ മറ്റേതാണ് വെയിറ്റിംഗ് മതിയല്ലേ ഓക്കെ ഓക്കെ അത് എഴുന്നൂറ്റി എൺപതാണ് ആ ആ ഓക്കെ ഓക്കെ